ഹലോ ഹലോ

ഗുഡി ആഫ്റ്റർനൂൺ ഞാൻ ട്രാഫിക്കിൽ നിന്ന് വിളിക്കുവായിരുന്നു ഓക്കെ നമ്മുടെ വണ്ടിയാണോ കെ എൽ മുപ്പത്തെട്ട് ഈ പൂജ്യം പൂജ്യം മൂന്ന് നമ്മൾ ചെറിയൊരു പെറ്റി ഉണ്ടായിരുന്നല്ലൊ നമുക്ക് ആ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയെന്ന് ഉള്ള ഒരു ഒരു ട്രാഫിക്ക് നിയമം തെറ്റിച്ചതായിട്ട് ഏ ഒരു ഫോർ തൗസൻഡ് ഉണ്ട് ഒരു ഫോർ തൗസൻഡ് പെറ്റി നമുക്ക് വന്നിട്ടുണ്ട്

എൻ്റെ പേര് ഷംസുദീൻ ഞാൻ ട്രാഫിക്ക് പോലീസിലെ ഹെഡ്ഡാണ് ഓക്കെ എന്നാ നമ്മടെ പേര് എന്തായിരുന്നു സെബാസ്റ്റ്യൻ ഓക്കെ ഓക്കെ ഓക്കെ നമുക്ക് നമ്മൾ ട്രാഫിക് നിയമങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത് ഓക്കെ നമ്മളത് തെറ്റിച്ചതായിട്ടാണ് നമ്മൾ ക്യാമറയിൽ റീഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾ ട്രാഫിക്കിൽ നിൽക്കാതെ നിങ്ങൾ ഗ്രീൻ സിഗ്നൽ കാണിക്കാതെ നിങ്ങൾ പോയി എന്നുള്ള രീതിയിലുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ട് ഫോട്ടോ നമ്മുടെ ക്യാ നിങ്ങളുടെ എൺപത് രൂപ തന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഡീറ്റെയ്ൽസ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒന്നെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലേ നിങ്ങളുടെ വേറാരേലും വണ്ടി എടുത്തുകൊണ്ട് പോയതായിരിക്കാം പക്ഷെ നിങ്ങളുടെ വണ്ടിയുടെ പേരിലാണ് പെറ്റി വന്നേക്കുന്നത് അപ്പോൾ നിങ്ങളത് നിങ്ങൾ മാത്രം താങ്കൾ താങ്കൾ സെബാസ്റ്റ്യൻ സ സെബാസ്റ്റ്യൻ മാത്രമേ കാർ ഉപയോഗിക്കാറുള്ള അതോ നിങ്ങളുടെ കാർ വേറാരേലും ഉപയോഗിക്കുമോ റെഡി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഷംസുദീൻ സഹോദരൻ്റെ പേരെന്താണ് ഓ ശരി ശരി ശരി ശരി ശരി അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക കാരണം എന്ന് വെച്ചാല് ഫൈൻ നാലായിരമുണ്ട് നമുക്ക് ഇപ്പഴത്തെ നിയമം അനുസരിച്ച് നമ്മൾ ഫൈൻ കൂട്ടിയിട്ടുണ്ട് നേരത്തെ റ്റു തൗസൻറ്റായിരുന്നു ഇപ്പോൾ ഫോർ തൗസൻറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കാര്യമായിട്ടും നിങ്ങൾ ഈ ആ നിങ്ങൾ അല്ലല്ല അത് ഫൈൻ അത് പോയത് നിങ്ങൾ ഓൺലൈൻ വഴിയൊന്ന് അതൊന്ന് ഫൈനൊന്ന് അടച്ച് വിട്ടാൽ മതി

ഹലോ നിങ്ങൾ ഓൺലൈൻ വഴി ഓൺലൈൻ വഴി ചെയ്തുകൊള്ളുമല്ലോ അല്ലേ കാരണം എന്നുവെച്ചാൽ നമുക്ക് ഇപ്പം നമുക്ക് എല്ലായിടത്ത് നിന്നും വിളിച്ച് പറയണം എന്നുള്ള ഒരു നമുക്ക് ഓർഡർ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് ഡയറക്റ്റ് ഷംസുദീൻ ആ ഓക്കെ അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡീൽ ചെയ്യാം ആ ഓക്കെ ഓക്കെ ഓക്കെ